ഇപ്പോൾ മൃഗസംരക്ഷണത്തിന് സാധാരണ എല്ലാവരും ഇപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് വരുന്നത് മൃഗങ്ങളെന്നൊക്കെ പറയുന്നത് കൂടുതൽ ആൾക്കാരും വളർത്തുന്നത് പശു ആട് കോഴി അങ്ങനത്തെ ഇതിനെയൊക്കെയാണ് കാരണം അങ്ങനെയുള്ള മൃഗങ്ങളെ വളർത്തുന്നതിനെയാണ് കൂടുതൽ ആൾക്കാർക്കും എന്താ പറയാ അങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻറ് മാത്രമല്ല റിട്ടേണും നമുക്ക് എന്തേലൊക്കെ എന്താ പറയാ അങ്ങോട്ട് കൊടുക്കുന്നത് മാത്രമേ ഇങ്ങോട്ട് കിട്ടാനും എന്തേലൊക്കെ ഒരു ഇതൊള്ളൂ അപ്പം കൂടുതൽ ആൾക്കാരും തിരഞ്ഞെടുക്കുന്നത് അങ്ങനത്തെ മേഖലയിലുള്ള മൃഗസംരക്ഷണത്തിനൊക്കെയാണ് പിന്നെ ഇന്നത്തെ സമൂഹത്തിലിപ്പം എന്ന് പറയുമ്പോൾ എന്താ പറയാ നായ അങ്ങനെയുള്ള നായ പൂച്ച അങ്ങനത്തെ ബ്രീഡുകളെയൊക്കെ കൂടുതലായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാരണം അതിനെ വിറ്റും ഇന്നിപ്പോൾ കുറെ ആൾക്കാർ ക്യാഷും കാര്യങ്ങളൊക്കെ നേടുന്നുള്ളൊണ്ട് അവർ ഇപ്പോൾ പലതരത്തിലുള്ള ബിസിനസ് മൈൻഡിലാണ് ഇപ്പം ആൾക്കാർ എല്ലാവരും മൃഗങ്ങളെ വളർത്തുന്നത് പണ്ടത്തെ അവരെന്നൊക്കെ പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ പുറത്ത് വളർത്തുന്നവരും ഉണ്ട് എന്നാൽ ഇന്നിപ്പോൾ എന്താ പറയാ മിക്സ് ആയിട്ടാണ് എല്ലാത്തിനെയും ഇപ്പോൾ എല്ലാ മിക്ക ഫാമുകളിലും തന്നെ എല്ലാ തരത്തിലുള്ള മൃഗങ്ങളെയും ഒന്നിച്ചുതന്നെയാണ് വളർത്തുന്നത് കാരണം അതിനെയെല്ലാം ആവശ്യക്കാരുടെ ഇപ്പോൾ എണ്ണം കൂടി വന്നോണ്ടിരിക്കുവാണ് അപ്പോൾ നമുക്ക് വേണ്ടതുപോലെത്തന്നെ അവർ ചെയ്തുതരുന്നുണ്ട് കാരണം എല്ലാ മൃഗം എല്ലാ മൃഗങ്ങളും ഉള്ളത് എന്തുകൊണ്ടും ബെറ്ററ് തന്നെയാണ് കാരണം നമുക്ക് ഏത് സാധനം ആണോ വേണ്ടത് അത് ഒരു സ്ഥലത്ത് നിന്നുകഴിഞ്ഞാൽ നമുക്കത് കളക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുതന്നെ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടാണ് എനിക്കും തോന്നുന്നത്